കൊല്ലം പൂരം മേള പരിപാടിക പരിപാടി കളിക്കുന്ന സാധനങ്ങൾ കൊല്ലത്ത് നാനാജാതി മതസ്ഥരും നല്ല എല്ലാവരും ഒരു കോടി ആഘോഷിക്കുന്നത് കൊല്ലം പൂരം ആശ്രമം മൈതാനത്ത് ആശ്രമ മൈനാ ഇത് മന്ദിര മൈതാനത്തിലാണ് കാണുന്നത് കളികളും കളിക്കാനും സാധനങ്ങൾ വാങ്ങാനും സർക്കസ്സുകളും ആകാരങ്ങൾ കഴിക്കാനുള്ള ആഹാരങ്ങൾ കുടിവെള്ളം ഇവയെല്ലാം അവിടെ കിട്ടുന്നതാണ് കളിപ്പിക്കാൻ ഓപ്പർ ഓ സാധനങ്ങൾ ഓഫർ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ കാണും സർക്കസ് കളികൾ ശോഭ സീറ്റുകൾ ശോഭാ സീറ്റുകൾ വളർത്തുമൃഗങ്ങൾ ഷോ വളർത്തുമൃഗങ്ങളുടെ ഷോ ഷോ കേസുക ഷോ മറ്റുള്ള സാധനങ്ങൾ ഇവയെല്ലാം നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും പിന്നെ പൂരമായ ഡാൻസുകളും പാട്ടുകളും പലപല കളികളും ഡ്രസ്സുകളും ഇതെല്ലാം അവിടെ വാങ്ങാൻ കിട്ടും പ്രശ്ന പല പല രീതിയിലുള്ള പാത്രപണ്ടങ്ങൾ സ വീട്ടുപകരണ സാധനങ്ങൾ ഇവയെല്ലാം നമുക്കവിടെ വാങ്ങാൻ കിട്ടും കേരളാപ്പിറവിക്ക് അഷ്ടമുടി കായലുകളിൽ കായലിൽ വള്ളംകളി മത്സരം നടക്കുന്നതാണ് അതില് നാനാ മതസ്ഥരും പങ്കെടുക്കുന്നതാണ് കേരള സാരികളുമുടുത്ത് ഓരോ ജാ മ ആൾക്കാരും അവിടെ കൂട്ടംകൂട്ടമായി വന്ന് ആ വള്ളം കളി കാണുന്നതും അത് കണ്ട് രസിക്കുന്നതുമായിരിക്കും അങ്ങനെ പല പല പ്രശ്നങ്ങളും അവിടെ പല പല കാര്യങ്ങളും നമുക്കു കാണാൻ പറ്റും ഇതെല്ലാം കേരളത്തിൻ്റെ ഓരോ ആവശ്യങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് നമ്മൾ കാണുന്നത് അങ്ങനെ പല പരിപാടികളും അവിടെ നടക്കുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നതാണ് എല്ലാവിധ ആ രുചികരമായ ഭക്ഷണങ്ങളും മറ്റു സാധനങ്ങളും വാങ്ങാൻ കിട്ടും അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഈ മേള നടക്കുന്ന സ്ഥലങ്ങളിൽ പരിപാടികൾ കുടുംബശ്രീക്കാരുടെ ഓരോ പരിപാടികൾ അവിടെവച്ച് നടത്തുന്നുണ്ട് അങ്ങനെ കുടുംബശ്രീക്കാരുടെ പരിപാടികൾ ആഘോഷമായ രീതിയിൽ അവരെല്ലാവരും നടത്തുന്നുണ്ട് പല സാധനങ്ങളും ആ കുടുംബശ്രീയിലുള്ള മക്കൾ പല പല സാധനങ്ങൾ അവിടെക്കൊണ്ട് കച്ചവടം ചെയ്യാനും ഓരോ കാര്യങ്ങൾ നൃ നൃത്തങ്ങളും പരിപാടികളും പ്രസംഗങ്ങളും ആഘോഷമായ രീതിയിൽ നടത്താൻ ഓരോ ഓരോ സ്ഥലങ്ങളിൽ ഇരുന്നും ഓരോ മേളത്തി മേള മേളത്തിനായി മേള പരിപാടികൾ നടത്തുവാൻ ആൾക്കാര് വന്നു കൂടുന്നതാണ് അങ്ങനെ അങ്ങനെ കേരളാ പിറവിയും കൊല്ലം പൂരവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവരുന്നു